ആ മത്സ്യങ്ങള് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഒരുപാട് ഇനങ്ങള് മത്സ്യങ്ങള് ഉണ്ട് ഇപ്പോൾ നോക്കാണേ അയല മത്തി അതുപോലെ തന്നെ കട്ട്ല ജിലേബി കരിമീൻ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മത്സ്യങ്ങള് ഉണ്ട് പൊതുവേ എല്ലാവരും മത്സ്യങ്ങള് വറുത്തിട്ടും മറ്റു കാര്യങ്ങള് നല്ല ടേസ്റ്റും മറ്റു കാര്യങ്ങള് നോക്കുമ്പോൾ കൂടുതലും വറുക്കാനുള്ളത് ഫ്രൈ ചെയ്യാറുള്ളത് പിന്നെ കറിയും മറ്റു കാര്യങ്ങളും പുളിയിട്ടും വെക്കാറുണ്ട് അപ്പോൾ സാധാരണ ആളുകള് ഇഷ്ടപ്പെടുന്ന സാധാരണ രീതിയിലുള്ള മത്സ്യങ്ങളാണ് കരിമീൻ ആയിക്കോട്ടെ അയല മത്തി ഇതൊക്കെ സാധാരണ ആൾക്കാർക്ക് ലഭ്യമാകുന്ന മത്സ്യങ്ങളാണ് അതുപോലെ തന്നെ അത്ര വെലയും അത്ര ഇല്ലാത്ത മത്സ്യങ്ങളാണ് അപ്പോ ഇവയൊക്കെ പല സ്ഥലങ്ങളില് പല പേരുകളിലാണ് അറിയപ്പെടണത് പ പല പേരുകളിലാണ് അറിയപ്പെടണത് പൊതുവേ അങ്ങനെ ഇപ്പോൾ അയല മത്തി ഇതൊക്കെയാണ് സാധാരണ ആളുകൾ കഴിക്കാറുള്ളത്